ഇന്നലെ ഞാന് ഫ്ലിപ്കാര്ട്ടില് നിന്നും ഓഡര് ചെയ്തിരുന്ന എന്റെ ഒരു കുര്ത്ത വന്നിരുന്നു എനിക്ക് വളരെ നല്ല അനുഭവമാണ് പറയാനുള്ളത് കാരണം അവർ പറഞ്ഞ കറക്റ്റ് സമയത്തില് തന്നെ അവര്ക്കത് ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചു എനിക്കത് ഉപയോഗപ്പെടുത്താനായിട്ടും സാധിച്ചു വളരെ നല്ല കുര്ത്ത ആയിരുന്നു ഞാന് അതിൽ കണ്ടതുപോലെ തന്നെ ഉള്ള എനിക്ക് യൂസ്ഫുള് ആയിട്ടുള്ള വസ്ത്രമാണ് എനിക്ക് ലഭിച്ചത് അപ്പം വളരെയധികം നന്ദി ഉണ്ട് എന്റെ ഈ പോസിറ്റീവ് അനുഭവത്തിന് ഞനൊരു ഫോര് സ്റ്റാറ് റേറ്റിങ്ങ് നല്കുന്നു